ആ ആ ഇവർക്ക് ക്ലാസ്റൂമിൽ അലമ്പുണ്ടാക്കാതിരിക്കാൻ വേറെ വല്ല പ്രവർത്തനങ്ങങ്ങളും ഹോംവർക്ക് അങ്ങനെ എന്തെങ്കിലും നമുക്ക് കൊടുത്താലോ കുറച്ചുംകൂടി പസ്സ്ളിങ്ങ് ആയിട്ടുള്ള വല്ല വർക്കും കൊടുത്താലോ അങ്ങനെ ആവുമ്പോൾ അവരുടെ ശ്രദ്ധ മാറിപ്പോവുമല്ലോ

ആ നിങ്ങൾ പ്രിസിപ്പളിനോട് ക്യാബിനിലേക്ക് അവരോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ആ ആ ആ നമുക്കൊരു കാര്യം ചെയ്യാം കുട്ടികളോട് ആദ്യം ഒന്ന് പറഞ്ഞ് നോക്കാം ഇനി ഇങ്ങനെ അവർത്തിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും വീട്ടിൽ നിന്ന് ആളെ കൊണ്ടുവരാതെ കൊ സ്കൂളിൽ കയറ്റില്ല എന്ന് പറയാം നമുക്ക്

ആ ആ ടീച്ചർ അങ്ങനെ പറഞ്ഞ് നോക്കിയിരുന്നോ ആ എന്നാൽ ഒ നമുക്കൊരു കാര്യം ചെയ്യാം ഇങ്ങനെ പറഞ്ഞ് നോക്കാം നമുക്ക് എന്നിട്ടും കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ശരിക്ക് നമുക്ക് ഫോൺ നമ്പർ ഉണ്ടല്ലോ സ്കൂൾ ഡയറക്ടറിയിൽ അതിൽ നിന്ന് നമുക്ക് പേരൻറ്സിനെ നേരിട്ട് വിളിക്കാം ആ ആ എന്താണ് അവർ ഭയങ്കര അഗ്രസീവ് ആയിട്ടാണോ ടീച്ചറോടെന്തെങ്കിലും മോശമായിട്ട് പെരുമാറുന്നുണ്ടോ

ആ ആ ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ എൻ്റെ ഫ്രീ ടൈമിൽ ഞാൻ ഏതാണ് ക്ലാസ് ഏതായിരുന്നു ആ ട് ട്വൽത് ബി ആ ഓക്കെ ഞാനേ ഫ്രീ ആവുന്ന സമയത്ത് ഞാൻ ട്വൽത് ബിയിലേക്കൊന്ന് വരാം ഞാൻ അവരുമായിട്ടൊന്ന് നേരിട്ട് സംസാരിച്ച് നോക്കട്ടെ എന്താണ് പ്രശ്നം എന്ന് നമ്മൾ അറിയണമല്ലോ ആ ആ നമുക്ക് ഒരുമിച്ചേ നമ്മൾ ആ നമ്മൾ അവരെ ഒരുമിച്ച് നോ കൈകാര്യം ചെയ്യേണ്ടി വരും അവർ എന്തായാലും അവർ പഠിത്തത്തിൽ നിന്ന് ഇങ്ങനെ മാറി നിൽക്കാൻ പറ്റില്ലല്ലോ എന്തായാലും ടീ ടീച്ചേഴ്സിനൊക്കെ അവർ റെസ്പെക്റ്റ് തരേണ്ട ഒരു പ്രായമാണ് അപ്പോൾ ചെറ് ചെറുത് മുതലേ നമ്മളിങ്ങനെ ശീലിച്ചിലെങ്കിൽ അവർ വലുതാവുമ്പോൾ നല്ലൊരു പൗരന്മാരാവില്ല അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് സംസാരിക്കാം ആ ആ ശരി ആ ശരി ടീച്ചർ ആ